ഹലോ ഹലോ ഹലോ വായനാട്ടിലെ ഗൈഡ് അല്ലേ ആ എനിക്ക് സോളോ ആയിട്ട് ട്രിപ്പ് പോവാൻ വേണ്ടിയിട്ട് അവിടെ ഏതൊക്കേ സ്ഥലങ്ങൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഞാൻ ഇപ്പം എറണാകുളത്തുനിന്ന് അല്ല എനിക്ക് കുറച്ച് ഓഫ്റോഡ് ആയിട്ടൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ബൈക്ക് എടുത്തിട്ടാണ് വരുന്നത് സ്ഥലങ്ങൾ ഉണ്ടല്ലേ അപ്പം നിങ്ങൾ നമ്മുടെ കൂടേ വരുവോ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഉണ്ട് കുറച്ച് അതായത് സോളോ ആയിട്ടാണ് വരുന്നത് അപ്പം കുറച്ച് ടീംസ് ഉണ്ട് ബൈക്കും കൊണ്ട് വരുന്നത് ആ ഓഫ്റോഡ് അതുതന്നെ അതുതന്നെ അപ്പോൾ ഓഫ്റോഡ് ടൈപ്പ് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അവർക്ക് കുറച്ച് എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ നമുക്ക് പിന്നെ അതിന്റെ മേളിൽ

അപ്പം അവിടെ കയറണെങ്കിൽ റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ

ആ ഓക്കേ ഓക്കേ നമുക്കവിടെ ഒരു ടെന്റ് അടിച്ചിട്ട് അവിടെ നമുക്കൊരു ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ എല്ലാവരും ഓരോരോ ബൈക്കിലാണ് വരിക ഏ ആ അപ്പം നമുക്ക് അവിടെ ഒരു പതിനഞ്ച് പേരുടെ അടുത്ത് ഉണ്ടാവും ആ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് തരുവാണെങ്കിൽ നല്ലതായിരുന്നു നമ്മൾ ഇപ്പം അവിടുന്ന് ആ അക്കോമഡേഷനും ആ രണ്ട് മൂന്ന് ഒരു ഒരാഴ്ച്ചത്തെ ട്രിപ്പ് ആണ് നമ്മൾ വരുന്നത് അപ്പം നമ്മൾ വയനാട് മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു

അപ്പം നിങ്ങൾ എല്ലാ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് വരും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പം ഞാൻ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം

ആ ഓക്കേ ഓക്കേ ആ ഓക്കേ എന്നാൽ ഞങ്ങൾ എന്നാൽ വിളിക്കാം ഞാൻ ആ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ ആ ശരി